ഹലോ അസ്സലാമലൈക്കും ഊബറിൻ്റെ ഓഫീസല്ലേ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഉച്ചക്ക് ഒന്നരയ്ക്ക് അങ്ങനെ അത് ഇതുവരെ എത്തീക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങളത് ക്യാൻസൽ ചെയ്തോളീ ഞാൻ കസ്റ്റമർ കോർട്ടിൽ പരാതി കൊടുക്കാൻ പോവുന്നു നിങ്ങള് ഒരു ഓർഡർ ചെയ്താല് ആ ടൈമില് എത്തിക്കാൻ പറ്റില്ലെ ഇങ്ങക്ക് അത് ക്യാൻസല് ചെയ്തോ സമയത്തിനൊക്കെ ഒരു കൃത്യനിഷ്ഠത വേണ്ടേ ഇങ്ങള് ഇങ്ങനെ കളിച്ചാലെങ്ങനെയാ നമ്മളെ വിലപ്പെട്ട സമയമല്ലേ പോവുന്നത് ആ അപ്പോൾ ഇനിമുതല് ശ്രദ്ദിക്കൂ കേട്ടോ ആ ഈ ഊബറ് ക്യാൻസൽ ചെയ്തോളൂ ഇനി ഇൻഷാ അള്ളാ ഇനി എപ്പോഴെങ്കിലും ബുക്ക് ചെയ്യാം ഇങ്ങള് ഇനി ടൈമിൻ്റെ കാര്യം എല്ലാമൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ